ഹലോ ചേച്ചി ആ ചേച്ചി ഉച്ചയ്ക്ക് ചോറ് കഴിച്ചോ നമുക്കൊന്ന് പുറത്ത് പോയാലോ ആ എനിക്ക് ഒരു കമ്മൽ മാറ്റാനുണ്ടായിരുന്നു ഗോൾഡ് അ ആ അപ്പോൾ ചേച്ചി നല്ല നല്ല ഒരു ഷോപ്പ് ഒന്ന് പറഞ്ഞ് തന്നെങ്കിൽ നന്നായിരുന്നു ആ അതെയോ ആ അവിടെ പണിക്കൂലിയെല്ലാം കുറവുണ്ടോ അതെയോ ചേച്ചിക്ക് അറിയുന്ന ആരെങ്കിലും ഉണ്ടോ സ്റ്റാഫ് ആരെങ്കിലും ഉണ്ടോ ആ എനിക്ക് പിന്നെ ഒന്ന് തുണി ഷോപ്പിലും പോവണമായിരുന്നു ഒരു കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കും തുണി ഷോപ്പ് നല്ലത് കല്യാൺ സിൽക്സിൽ നല്ലതുണ്ടാവുമോ സാരിയൊക്കെ എ ആ അ അല്ല ഇപ്പോൾ കോമ്പോ ഓഫറ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ നമ്മൾക്ക് ഒന്ന് പോയി നോക്കായിരുന്നു ചേച്ചി ഫ്രീയുണ്ടാവുമല്ലൊ ഉച്ചയ്ക്ക് ശേഷം ആ ആ ആ ആ അപ്പം ഒന്ന് നമ്മൾക്ക് ഒന്ന് പോയി നോക്കായിരുന്നു ചേച്ചിക്ക് എന്തെങ്കിലും വാങ്ങാനുണ്ടോ ആ ആ ആ അ ആ ആ ആ അപ്പോൾ ഇത് ഭീമയിൽ എങ്ങനെയാണ് അവരെ സർവീസ് കാര്യങ്ങളെല്ലാം അതെയോ അ അ അ ആ അപ്പോൾ എനിക്ക് ഒരു കമ്മൽ വാങ്ങണമായിരുന്നു പിന്നെ ഒരു മോളെ ഒരു ചെറിയ ഒരു സ്റ്റഡ് ഉണ്ട് അതൊന്ന് ഇതുൻ്റെ ഇടക്ക് ഒന്ന് തോർത്ത് കയറി ഇതാക്കിയും അത് അതിൻ്റെ കാൽ ഒന്ന് വളഞ്ഞ് പോയായിരുന്നു സ്റ്റഡ്ഡിൻ്റെ അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്ഞ്ച് ആക്കി കിട്ടാൻ ഇപ്പോൾ പഴയ സ്വർണത്തിന് വില കുറവ് അങ്ങനെ കിട്ടുമോ ഇല്ലയോ എന്ന് ഒരു ഡൗട്ടായത് കൊണ്ട് ചേച്ചിനെ വിളിച്ചതാണ് ആ ആ അങ്ങനെ വിളിച്ചതാണ് അപ്പൊൾ ചേച്ചി ഉണ്ടാരുന്നെങ്കിൽ നന്നായിരുന്നു ഒരാളുണ്ടല്ലോ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പോവാൻ ഒരു

അതുകൊണ്ട് ചേച്ചി വരുമല്ലൊ അപ്പോൾ ആ എന്താണ് ചേച്ചിക്ക് എന്താണ് കറി എന്താണ് ഉച്ചയ്ക്ക് കറി എന്തായിരുന്നു അതെയോ ആ കുറച്ച് ഒന്ന് തരുമോ കുറച്ച് കുറച്ച് എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ് മുരിങ്ങ ഇല ആ ശരി എന്നാൽ ആ ശരി ശരി ആ ഓക്കെ ശരി ചേച്ചി ശരി അപ്പം